ഞാനെൻ്റെ ചാച്ചൻ്റെ അഭിപ്രായം ആണ് കൂടുതലും ശ്രമി അ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അതായത് ചാച്ചനൊരു കൃഷി നല്ലൊരു കൃഷിക്കാരനായിരുന്നു പുള്ളിനോട് ഞാൻ എന്തെങ്കിലും നടു നടുകാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ പുള്ളിനോട് ആദ്യമേ ഫസ്റ്റ് തന്നെ ചോദിക്കും ആദ്യം നടുമ്പോൾ എന്ത് വളമാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എത്രമാസം കഴിയുമ്പോൾ പിന്നീടതിന് വളം ഇടണം പിന്നീട് അതിൻ്റെ ഉൽപ്പന്നം കാര്യങ്ങളും അതിനുള്ള മരുന്നുകള് കാര്യങ്ങളും കീടനാശിനികള് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടുമാത്രം ഞാൻ പുള്ളിനെ ആശ്രയിച്ച് നിക്കുന്നത് പുള്ളിതന്നെ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പറയുകാണെങ്കിൽ തന്നെ പുള്ളി അത് വന്ന് വീട്ടിൽ ആയാലും വന്ന് അത് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുള്ളി തന്നെ വേണമെങ്കിലും അത് ചെയ്ത് തരുന്നുമുണ്ട് അതുപോലെ പുള്ളി എൻ്റെ വീട്ടില് ഇതുപോലെ തന്നെ എല്ലാ കൃഷിയും കാര്യങ്ങളുമൊക്കെയുണ്ട് അത് കണ്ടിട്ടാണ് ഞാനും ഇങ്ങനെയൊരു സംഗതി നോക്കി കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കൊണ്ട് മുന്നോട് പോകുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ എന്താ പറയുക അത് നല്ലൊരു കാര്യങ്ങളാണ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വൃക്ഷങ്ങളും കാര്യങ്ങളുമൊക്കെ നട്ടുപിടിപ്പിക്കുക അതിനുള്ള കാര്യങ്ങള് ചെയ്യുക അതൊക്കെ ഈ പറയുന്നപോലെ എൻ്റെ ഈ ചാച്ചൻ്റെ ഒരു ഉപദേശവും കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ എനിക്ക് കിട്ടുന്നത്